മനുഷ്യ ജീവിതങ്ങളിലും സമാജങ്ങളിലും ഇന്നത്തെ കാലത്ത് ബൈക്കെന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു നിത്യ ജീവിതത്തിൻ്റെ നിത്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംഗമായി മാറിയിരിക്കുകയാണ് ബൈക്കുകൾ അതായത് ഇരുചക്ര വാഹനങ്ങൾ നേരത്തെയൊക്കെ സൈക്കിളുകളായിരുന്നു അത് മാറി ഇപ്പം എല്ലാവർക്കും ഒരു ഇരുചക്ര വാഹനമെന്നത് എല്ലാവർക്കും ഇപ്പം നിലവിലുണ്ട് വളരെയധികം ലിബറലായിട്ടാണ് അവർ ഇന്നത്തെ ഇന്നത്തെ കാര്യങ്ങളിൽ ബൈക്കുകൾ അവര് സപ്ലൈ ചെയ്യുന്നത് ആർക്കും ഇന്ന് ഒരു ബൈക്ക് ബൈക്കില്ലാത്തവരായിട്ട് ആരും ഇന്നത്തെ കാലത്തില്ല എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ബൈക്കുകൾ ഉണ്ട് ബൈക്കുകളെന്ന് പറയുന്നത് ഇന്ന് കൂടുതലും എല്ലാ മനുഷ്യരിലും കണ്ടുവരുന്ന എല്ലാവർക്കും എല്ലാ വീട്ടിലും രണ്ടും മൂന്നും ബൈക്കുകൾ ഉണ്ടാകും കുട്ടികളാണെങ്കിലും പ്രായപൂർത്തിയാകുമ്പോഴെ അവർ ഒരു ബൈക്ക് എന്നത് അവരുടെ ഒരു സ്വപ്നമാണ് മിക്ക മാതപിതാക്കളും ഇന്ന് ബൈക്കുകൾ അവർ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാൻ കൊടുക്കുക എന്നത് അവരുടെ ഒരു സ്വപ്നമാണ് ഇന്നത്തെ കുട്ടികൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ അവർ ആദ്യമേ പറയുന്നത് അപ്പ അല്ലേ മമ്മി എനിക്ക് ഒരു ബൈക്ക് വേണം എന്നാണ് അവർ കൂടുതലും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം ബൈക്കുകളെന്ന് പലതരത്തിലും പല വെർഷനും പല മോഡലുകളിലും പല പവറുകളിലുമുള്ള ബൈക്കുകൾ ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ് ഓരോ കുട്ടികളും അവരുടേതായ പാഷൻ അനുസരിച്ചു ബൈക്കുകൾ ഇന്ന് കൊണ്ടു നടക്കാറുണ്ട് മോഡിഫൈ ചെയ്തും സൗണ്ടുകളുടെ ഡിഫറെൻസേഷൻ ഉണ്ടാക്കിയും ഓൾട്രറേഷൻ ചെയ്തുമൊക്കെ അവർ ഇന്ന് ബൈക്കുകൾ കൊണ്ടു നടക്കുന്നുണ്ട് പിന്നെ ബൈക്കുകൾ ഇന്ന് അധികമായതുകൊണ്ട് റോഡുകൾ റോഡുകൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് കാരണം ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ പെടുന്നത് പെടുക അതുകൊണ്ട് കൂടുതൽ അവർ ഇരുചക്ര വാഹന അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഏറ്റവും കൂടുതലാണ് ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതും ഒരു ഒരോരുത്തരുടെയും കടമയാണ് റോഡിലെ മാർഗ്ഗ നിർദേശങ്ങൾ പാലിച്ചും വേണ്ട രീതിയിൽ സ്പീഡിൽ ഓടിച്ചും ഒക്കെയാണ് ഇന്നത്തെ കാലത്ത് വണ്ടി കൊണ്ടു നടക്കേണ്ടത് പക്ഷേ കുട്ടികളിൽ നിന്ന് ഒരു റേസിംഗ പ്രവണതയും മത്സര ഓട്ടങ്ങളും നിത്യേന സർവസാധാരണമാണ് ഓരോ ദിവസവും നമക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇരുചക്ര വാഹനങ്ങൾ മൂലമുള്ള മരണങ്ങൾ കണ്ടു വരുന്നത് പിന്നെ ഇന്ത്യയുടെ സംസ്കാരത്തെ സംസ്കാരത്തിനും ഭൂപ്രദേശത്തിനും അറിയുക എന്നുള്ളത് നമ്മൾ ഹിസ്റ്ററി നമ്മൾ ഹിസ്റ്ററിയും ജോഗ്രാഫിയും പഠിക്കുന്ന കാലം തൊട്ട് നമുക്ക് ഇന്ത്യയുടെ ഭൂപ്രദേശം അത്തരം സംസ്കാരത്തെ പറ്റി നമുക്ക് നല്ല രീതിയിൽ അറിവുകൾ ലഭിക്കുന്നതാണ് പിന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്നു പറയുന്നത് പൊതുവേ എല്ലാവിധ കലങ്ങളും കാലഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒന്നാണ് പിന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും അതിൻ്റേതായ പാരമ്പര്യത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് ആഗോള ആഗോളതാപനം ഇന്ന് ഇന്ത്യയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഇന്ത്യയുടെ ക്ലൈമറ്റ് കാലാവസ്ഥയെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നാണ് വേണ്ട രീതിയിൽ ആ ആഗോളതാപനത്തെ നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് വളരെയധികം ഭവിഷ്യത്തുകൾ അപ്പം പ്രകൃതിയിൽ സംഭവിക്കുന്നത് ഇടയാകാറുണ്ട് എന്തുകൊണ്ടന്ന് ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ ഇന്നത്തെ ഓസോൺ പാളികളിലുള്ള വിള്ളലും അതൊക്കെ കാരണം ഓരോ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പ്രകൃതി അതിന് അനുസരിച്ചു ഉരുൾപൊട്ടലുകൾ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ഇതൊക്കെ നമ്മുടെ ഭൂപ്രകൃതിയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിനൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടാവുന്നതൊക്കെ ഖനനങ്ങളും അനധികൃത ഖനനങ്ങളും മണലെടുപ്പും ഇതൊക്കെ ഭൂപ്രകൃതിയെ വേണ്ട രീതിയിൽ സാധീനിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സംസ്കാരം എന്നു പറയുന്നത് വളരെ പണ്ട് തൊട്ടെ പ്രാചീനകാലങ്ങൾ തൊട്ടെ വളരെ ഫേമസായ സിന്ധു നദീതട സംസ്കാരവും പണ്ട് തൊട്ടെ എല്ലാ രാജ്യങ്ങളിലും ഫേമസായ പേരുകേട്ട ഒന്നായിരുന്നു പക്ഷേ ഇന്ന് അതിൻ്റെയൊക്കെ പാലിച്ചു പോകുന്നവരും ഉണ്ട് സംസ്കാരികമായും പ്രാദേശികമായും ഇന്നത്തെ കാലത്ത് അതൊരു പാലിച്ചു കൊണ്ടു പോകുന്നവരുണ്ട് വേണ്ട രീതിയിൽ നല്ല ഒരു സംസ്കാരം അവർ കൊണ്ടു നടന്ന ഇന്ത്യയിൽ കൊണ്ടു ഉണ്ടായിരുന്നതാണ്